ഹലോ ഹലോ പിന്നെ ഒരു കാർ എടുക്കാൻ വേണ്ടി ആയിരുന്നേ ആ ഞാൻ ഇവിടെ മാനന്തവാടി ആ നമ്മൾ ഒരു പിന്ന അതായത് ലോൺ ഇട്ടിട്ട് എടുക്കാൻ വേണ്ടി ആയിരുന്നേ ഒരു വൺ ലാക്കിന്റെ അടുത്തുണ്ട് ആ നൈൻറ്റി തൗസൻഡ് അല്ലേ ആ വൺ ലാക്കിന്റെ അടുത്തുണ്ട് നമുക്ക് നമുക്ക് ഫോർ സീറ്റ് ആണ് വേണ്ടത്

വൺ മന്ത് ആവും ആ ഹാ ഹാ പിന്നെ പൈസ എങ്ങനെയാണ് മാസം അങ്ങനെ അതായത് അങ്ങനെ ഡേറ്റ് ഒന്നും ആ നിങ്ങൾ ആണ് അല്ലേ നമുക്ക് മാസം മാസം ഇങ്ങനെ കറക്റ്റ് ഡേറ്റ് ഉണ്ടാവുമോ അതോ നമുക്ക് പൈസ നമ്മുടെ ആ അല്ലാണ്ട് നമുക്ക് പൈസ നമുക്ക് കൂടുതൽ ഉള്ള സമയത്തും പറ്റില്ല അല്ലേ അടയ്ക്കാൻ പറ്റില്ല അല്ലേ

ആ ആ അപ്പം ഐ ടെന്നിന് റേറ്റ്

ആ അത്രയേ വരുള്ളൂ ഐ ട്വൻറ്റിക്ക് എത്രയാണ് പറഞ്ഞത് മ് എങ്ങനെ കേൾക്കുന്ന്

ആ അപ്പം നമുക്ക് ഹസ്ബൻഡ് വന്നിട്ടില്ല ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വന്നിട്ട് വേണം നമുക്ക് നോക്കാൻ അപ്പം എന്നോട് ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിക്കാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ വിളിച്ചതാണ് അപ്പം എനിക്ക് വലിയ പിടിത്തം ഒന്നും ഇല്ല അപ്പോൾ നമ്മള ഹസ്ബൻഡ് ഒരു മാസം ആവും വരുമ്പം അപ്പം അതിന് മുന്നേ നമ്മൾ വണ്ടി ഇപ്പം കണ്ടിട്ട് ഒന്ന് ഫിക്സ് ആവുവാണെങ്കിൽ നമ്മൾ പൈസ ഡൗൺ പേയ്മെൻറ്റ് ചെയ്യും അപ്പം ഹസ്ബൻഡ് വരുമ്പോഴത്തേക്ക് വണ്ടി എന്തായാലും നമുക്ക് കിട്ടുമല്ലോ അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നിങ്ങൾ ഞായർ സൺഡേ ഒക്കെ ഓപ്പൺ ആണോ നമുക്ക് സൺഡേ ആയിരുന്നു നല്ലത് കാരണം ഞാൻ ഒരു ജോലി സ്ഥലത്ത് വർക്ക് ചെയ്യുന്നതാണേ അപ്പം സൺഡേ ഉണ്ട് സൺഡേ ഓപ്പൺ ആണ് എത്ര മണി തൊട്ട് ആ ആ ഹാ ഹാ ഹാ ഡൗൺ പേയ്മെൻറ്റ് നൈൻറ്റി തൗസൻഡ് നൈൻറ്റി തൗസൻഡ് അല്ലേ ആ ഹാ ആ നിങ്ങൾ ലോണിന്റെ ഒക്കെ നിങ്ങൾ തന്നെ റെഡി ആക്കി തരണം കേട്ടോ നമ്മ ആ ഹാ ഹാ ഹാ ഓക്കെ എന്നാൽ എന്നാൽ ഞാൻ ഈ സൺഡേ വരാം ആ ഓക്കെ ഓക്കെ